ജൂൺ രണ്ട് ആയിരത്തിത്തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഫെബ്രുവരി പതിനേഴ് ആയിരത്തിത്തൊള്ളായിരത്തി എഴുപത്തിയാറ് മാർച്ച് പതിമൂന്ന് ആയിരത്തിത്തൊള്ളായിരത്തി അമ്പത്തിയെട്ട് ഓഗസ്റ്റ് പതിനേഴ് രണ്ടായിരത്തി മൂന്ന് ഓഗസ്റ്റ് പതിനെട്ട് രണ്ടായിരത്തി രണ്ട്